എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ബെഡ് ഷീറ്റ് ആണ് ഞാൻ ഓൺലൈനിൽ ആണ് മേടിച്ചത് അത് നമുക്ക് പുറത്ത് നിന്നൊക്കെയാണെങ്കിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ് ഷീറ്റ് മേടിക്കുമ്പോൾ നമുക്ക് അതായത് ഡബിൾ കോട്ടക്കെ മേടിക്കുകയാണെങ്കിൽ പത്തഞ്ഞൂറ് അറുന്നൂറ് രൂപയാകും അപ്പോൾ നമുക്ക് ഇവിടെ ജോഡിയായിട്ട് അതായത് രണ്ടെണ്ണം പില്ലോ കവർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും പത്തഞ്ഞൂറ് രൂപയാകും അപ്പോൾ ഞാനിങ്ങനെ ഓൺലൈൻ നോക്കിയപ്പോൾ മേടിച്ചു അപ്പം അതിൽ കണ്ടപ്പോൾ കോട്ടനാണ് കണ്ടത് നമുക്ക് കിട്ടിയപ്പോൾ അത് പോളിസ്റ്റർ ആയിരുന്നു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ പോളിസി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മേടിച്ച് കുടുങ്ങിയത് പോലെ ആയിപ്പോയി ഹാസ്ബൻഡ് ചീത്ത പറഞ്ഞു നീ നോക്കാണ്ട് മേടിച്ചിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപകാരമുണ്ട് പോളിസ്റ്റർ ആയതു കൊണ്ട് വേഗം ഉണങ്ങും ഒക്കെ ചെയ്യും പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ അടിയിലൊക്കെ പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതായത് പൊട്ട് ഉണ്ടെങ്കിൽ അത് കാലിങ്ങനെ പിടിച്ചു ഇങ്ങനെ നിൽക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ വേറൊരു പ്രശ്നങ്ങൾ ഒന്നും ഇല്ല പിന്നെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കായ പോലെ ഒന്ന് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കായ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനം അതിലിങ്ങനെ പൊന്തി വരാൻ തുടങ്ങും അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത് ഇത് അത്ര നല്ല പ്രോഡക്റ്റ് അല്ല